കുറേ കവിതയായിട്ടും കഥകളായിട്ടും കുറേ കവിതകളും കഥകളൊക്കെ പണ്ടു കാലം മുതലേ എല്ലാവരും എഴുതിപ്പോകുന്നതു കൊണ്ട് അതൊക്കെ നമ്മുടെ സംസ്ക്കാരത്തെയും പാരമ്പര്യത്തെയൊക്കെ നമ്മൾ നല്ലരീതിയിൽ സം സം സംരക്ഷിക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ അതുവഴി മലയാള ഭാഷ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു പിന്നെ പുതിയ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ പുതിയ കാര്യത്തിൽ ഒരു വ്യത്യസ്ഥമായ ഭാഷയാണ് പണ്ടത്തെ കാലത്തെപ്പോലെയല്ല വ്യത്യസ്തമായ ഭാഷയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഓരോ നാട്ടിലും ഉള്ള ഓരോ സ്ലാങ്ങുകളും ഡയലെറ്റുകളും ഓരോ ഡയലെറ്റുകളൊക്കെ വ്യത്യസ്തമാണ് പിന്നെ നമ്മൾ മലയാള ഭാഷയെ നമ്മൾ നമ്മളുടെ മലയാളം എന്നത് നമുക്കൊരു പഠിക്കാൻ നിർബന്ധമുള്ള സബ്ജക്റ്റാണ് സ്കൂളുകളെല്ലാം അതുവഴി കുട്ടികൾ ഏകദേശം എല്ലാവരും കേരളത്തിലെ ഒട്ടുമിക്ക കുട്ടികൾക്കും മലയാളം സംസാരിക്കാനറിയാം പക്ഷെ പല കുട്ടികൾക്കും മലയാളം സംസാരിക്കുന്നത് മോശമാണെന്ന രീതിയിൽ പലരും മലയാളം സംസാരിക്കാൻ സം തയ്യാറാകുന്നില്ല പിന്നെ മലയാളം പലരും പുസ്തക വായനയിലൂടെയും പിന്നെ കുറേ കലാ കായിക സംഭവങ്ങളൊക്കെ കലകളൊക്കെ ഈ പാരമ്പര്യ കലകളൊക്കെ വഴി നമുക്ക് മലയാളത്തിലുള്ള പഴയ മലയാളം പോലെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലറിയാൻ നമുക്ക് സാധിക്കും ഈ കഥകളി ഓട്ടംതുള്ളൽ അങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ കൂടുതലും മലയാളത്തിൽ തന്നെയാണ് അവയുടെ പാട്ടുകളെല്ലാം മലയാളത്തിൽ തന്നെയാണ് നമുക്ക് കൂടുതലെല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുവഴി നമുക്ക് നമ്മുടെ സംസ്ക്കാരമൊക്കെ സംരക്ഷിക്കാൻ സാധിക്കും പിന്നെ മലയാളികൾ മലയാളത്തിൽ കുറേ പ്രശസ്തരായ എഴുത്തച്ഛൻ അങ്ങനത്തെ കുറേ കു തുഞ്ചൻ കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അങ്ങനെ കുറെ എഴുത്തുകാരൊക്കെ ഉണ്ട് അവരുടെ കുറേ കൃതികളൊക്കെ മലയാള ഭാഷയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് പിന്നെ മലയാളമെന്നുള്ളത് ഒരു ഭാഷ മാത്രമല്ല അതൊരു വികാരം കൂടിയാണ് മലയാളികൾക്ക് നമുക്ക് നമ്മുടെ ഭാഷയിൽ സം സംസാരിക്കുമ്പോൾ കിട്ടുന്ന സമാ സമാധാനവും സ്വാതന്ത്ര്യമൊന്നും നമുക്ക് മറ്റൊരു ഭാഷയിൽ ലഭ് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല നമുക്ക് നമ്മുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സ്വ സ്വയം സ്വന്തം വ്യക്തിത്വത്തോടെ നമുക്ക് സ്വന്തം ഉള്ളു തുറന്ന് സംസാരിക്കാൻ സാധിക്കും പിന്നെ കവിത വായിക്കുക പിന്നെ പുസ്തകം വായന ഇതെല്ലാം നമ്മുടെ ഭാഷയെ പരിപോഷിപ്പിക്കാനും ഭാഷയിലെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും